നല്ല വൈദ്യസഹായം ലഭിക്കുന്നതിന് ദാരിദ്ര്യം വലിയൊരു പ്രശ്നമാണ് ദാരിദ്ര്യം പിന്നെ വൈദ്യസഹായത്തിന് മാത്രമല്ല എല്ലാ മേഖലയിലും ഒരു പ്രശ്നമാണ് സാമ്പത്തികത്തിൻ്റെ കുറവുകളുണ്ട് ഒരു മേഖലയിലും നമുക്ക് ഒരു വിദ്യാഭ്യാസത്തിനായാലും തൊഴിലവസര തൊഴിൽ ലഭിക്കുന്നതിനായലും എല്ലാം ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നം ഒന്നാമതാണ് കാരണം ഇന്നവയെ എവിടെ ചെന്നാലും നമ്മൾ പണം കൊടുക്കാതെ ഒരു കാര്യവും സാധിക്കത്തില്ല അതില്ലാത്തവൻ അവന് ദാരിദ്ര്യത്തിൻ്റെ കുറവ് മനസ്സിലാവുകയുള്ളു ഏത് മേഖലയിലായാലും പണം കൊടുക്കാത്തെയൊരു ഇടപാടില്ല അതിൽ പിന്നെ ദാരിദ്ര്യം മുഖ്യഘടകം തന്നെയാണത് ദാരിദ്ര്യത്തെ പറ്റി പറഞ്ഞാൽ സാമ്പത്തികത്തിൻ്റെ കുറവ് കൊണ്ട് എല്ലാ പല കാര്യങ്ങളും തടസ്സമായി പോകുന്നുണ്ട് ഇവയ്ക്ക് ഒരു പരിഹാരവും കാണാൻ ഇന്ന് ഇതുവരെയും ഒരു സർക്കാരുകൾക്കും സാധിച്ചിട്ടില്ല കാരണം അവരെല്ലാം പണത്തിൻ്റെ പുറകേ പോകുന്നത് കൊണ്ടെന്നാണ് ആ സാധ്യതകളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ദാരിദ്ര്യം അടിക്കടി എല്ലാ മേഖലയിലും കൂടി കൊണ്ട് വരികയാണ് വിദ്യാഭ്യാസ മേഖലയായാലും ആരോഗ്യ മേഖലയായാലും പിന്നെ തൊഴിൽ മേഖലയായാലും മറ്റ് ഏത് മേഖലയിലായാലും ദാരിദ്ര്യം വലിയൊരു പ്രശ്നം തന്നെയാണ് ഇവ ഇവയെ ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ നിന്ന് നിയമവശങ്ങളുണ്ടെങ്കിലും സാധ്യമാകുന്നില്ല കാരണം അതൊന്നും ഈ സാമ്പത്തികത്തിൻ്റെ കുറവുകൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് ദാരിദ്ര്യം ദാരിദ്ര്യം ഒന്നിനൊന്നു മെച്ചപ്പെട്ടും വരികയാണ് ഇത് ഇതിനെ പരിഹരിക്കണമെങ്കിൽ ദൈവം പിന്നെ സർക്കാരിൻ്റെ കാര്യക്ഷമമായ ഇടപെടൽ അതായത് സാമ്പത്തിക സർവ്വേ നടത്തി അതും അവരെ ഓരോ വീടുകളിലും വന്ന് അവർ സർവ്വേ നടത്തണം നടത്തി ഓരോരുത്തരുടെയും വരുമാനവും പിന്നെ ഭൂമി വിസ്തീർണ്ണവും ഇതെല്ലാം തിട്ടപ്പെടുത്തി വേണം ദാരിദ്ര്യം രേഖകളും മറ്റു രേഖകളും സൃഷ്ടിക്കാൻ അവയുടെ അവർ ഇത് ഒരു ഭവനത്തിൽ വന്നു നിന്ന് ഇതിൻ്റെ അധികാരികൾ ആ ചുറ്റുപാടുമുള്ള മുഴുവൻ വീടുകളിലേയും കുറിപ്പെഴുതി കൊണ്ടു പോകുന്നതെയുള്ളു അത് ശരിയായൊരു ചിട്ടപ്പെടുത്തലല്ല അതിലൂടെയൊക്കെ ഒത്തിരി കുഴപ്പങ്ങളും ഉണ്ടാവുന്നുണ്ട് ഇവയ്ക്ക് പരിഹാരം മുഖ്യമായിട്ട് ഇതിനു വേണ്ടി തന്നെയൊരു സ്കോഡ് രൂപീകരിച്ച അത് ഓരോ വീടുകളിലും ചെന്ന് അവരവരുടെ വരുമാന മാർഗോം മറ്റുള്ളതും കണ്ടുപിടിച്ച് അതിൻ്റെ രേഖയുണ്ടാക്കി ആ രേഖയിലൂടെ വേണം ദാരിദ്ര്യം നിർമാർജനം ചെയ്യാനായിട്ട് ഇതിന് സർക്കാർ മുൻകൈ എടുക്കാതെ ഒരു കാര്യവും നടക്കത്തില്ല